എടാ എടാ ചെറിയ ഒരു പ്രശ്നമുണ്ടെടാ അതായത് എൻ്റെ പാസ്പോർട്ട് വെരിക്കേഷൻ വെരിഫിക്കേഷൻ അപ്പ്രൂവൽ ആയില്ല കാരണം ഞാൻ താടി മീശയും ചെറുതായിട്ട് എടുത്തായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ഇത് വെരിഫൈ ആവുന്നില്ല എന്ത് പ്രശ്നം ആണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല വളരെ ഇതിപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു പിടിയില്ല

അത് പാസ്പോർട്ട് അവർ അവർ ഡിക്ലൈന് ചെയ്തു വിട്ടേക്കുവാണ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്നു പറയാമോ കാരണാം എന്നു വച്ചാൽ എൻ്റെ കൈയിൽ ഇനി ഇപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ധാരണയും ഇല്ല ഇയോ എനിക്ക് സത്യമായിട്ട് ഒന്ന് ഈ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുമോ എന്ത് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്നു പറഞ്ഞു തരുമോ എനിക്ക് എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല

ഏ ഇതി ഇപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ ഒന്ന് ശരിയാക്കാൻ താടി മീശയും എടുത്തും പോയി ഇനി വെരിഫൈ ആവുന്നുമില്ല